ഉത്സവങ്ങളിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാറുള്ള വിഭവങ്ങൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഓണം ഓണം ഫെസ്റ്റിവൽനൊക്കെ നമ്മൾ ഊണും അതായാത് പച്ചക്കറി അടങ്ങീട്ടുള്ള ഊണ് ആ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കാർ ഊണിന് നമ്മൾ പച്ചടി കിച്ചടി തോരൻ അ അവിയൽ പപ്പടം പല തരത്തിലുള്ള കറികളൊക്കെ കൂട്ടീട്ട് പപ്പടം പായസം അങ്ങനെ പല തരത്തിലുള്ള കറികളൊക്കെ കൂട്ടീട്ടാണ് നമ്മൾ ഊണ് തയ്യാറാക്കാർ അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അതായത് അന്ന് ആ സമയത്ത് ഉണ്ടാക്കാറുള്ള അതായത് വിഭവങ്ങൾ എന്നുപറയുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ നാല് രണ്ട് മൂന്ന് കൂട്ടം പായസം പരിപ്പ് പായസം സേമിയ പായസം പാൽപ്പായസം അങ്ങനെ പല തരം പായസങ്ങളുണ്ട് അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ ഒരു നാലെണ്ണമോ രണ്ടെണ്ണമോ മൂന്നേണ്ണോക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് മെയിനായിട്ട് എല്ലാ എല്ലാ ഉത്സവ സീസണുകളിലും ഈ ഒരു വിഭവങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ഉണ്ടാക്കാർ പിന്നെ അല്ലാണ്ടുള്ള പെരുന്നാളോ ഇപ്പം ക്രിസ്തുമസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ ബിരിയാണി അങ്ങനെ പല തരം ഐറ്റംസും ഉണ്ടാക്കാറുണ്ട് പക്ഷേ മെയിൻ ആയിട്ട് നമ്മൾ എന്താ പറയാ സാധാരണ ആയിട്ട് ചോറും സാമ്പാർ അങ്ങനെ പല തരം അതായത് ഊണ് അങ്ങനെ പറയാണെങ്കിൽ കുറച്ചു കൂടെ എളുപ്പമായിരിക്കും